നമസ്കാരം ഇത് ഹെയർ ആൻഡ് ലവ്ലി സലൂണാണ് ഓ ഓക്കെ ഒരുപാട് തരം കട്ടുകളുണ്ട് പിക്സി കട്ട് ബോൾ കട്ട് ലോ കട്ട് ബസ് കട്ട് അണ്ടർ കട്ട് ഷഡ് കട്ട് ലേയർ കട്ട് അലൈൻ കട്ട് ബ്ലണ്ട് കട്ട് ലേയർ കട്ട് വി കട്ട് യു കട്ട് ടേപ്പ് അദെൻസ് ഇങ്ങനെ ഒരുപാട് തരം ഓക്കെ ഞാൻ എളുപ്പത്തിന് വേണ്ടി നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്പെഷ്യൽ ഐറ്റംസ് മാത്രം പറയാം സവാള ഗിരിഗിരി കട്ട് അതാണ് ഞങ്ങളെ ഏറ്റവും സ്പെഷ്യൽ സാധനം ഇത് ഞങ്ങൾ വർഷങ്ങളായി കഷ്ടപ്പെട്ട് രൂപീകരിച്ചെടുത്തൊരു പ്രത്യേക തരം കട്ടാണ് അതാണിവിടുന്ന് ഏറ്റവും കൂടുതൽ ആ അതിൽ ഫേഡും വരും ബ്ലീച്ചും വരും പിന്നെ നമ്മളൊരു കോംബോ ഓഫറുണ്ട് ഫാമിലിയായി വന്ന് എല്ലാവരും കൂടി മുടി വെട്ടുകാണെങ്കിൽ ഡിസ്കൗണ്ടുണ്ട് നൂറ് രൂപ

ഓ ഓക്കെ ഓക്കെ എട്ട് ചക്രമുള്ള സൈക്കിളിനുള്ള സ്ഥലമുണ്ടാവും ആ എൻ്റെ കാറിവിടുന്ന് മാറ്റിയിട്ടാൽ മതി അപ്പോൾ സ്ഥലമുണ്ടാവും പിന്നെ ബ്ലിച്ചെന്ന് പറഞ്ഞല്ലോ ഇപ്പോൾ നിങ്ങളേത് കളേഴ്സാണുദ്ദേശിക്കുന്നത് അതെ ഞങ്ങളിവിടെ സാധാരണ ബ്ലീച്ചല്ല യൂസ് ചെയ്യുന്നത് പ്രത്യേക തരം ഇവിടെ എൻ്റെ കൂട്ടുകാരൻ്റെ ഒട്ടകൊണ്ട് ഷിബു ഒട്ടകം ആ ഒട്ടകത്തിൻ്റെ പാലിൽ നിന്ന് ഞങ്ങൾ സ്പെഷ്യലായുണ്ടാക്കുന്ന ബ്ലീച്ച്കൾ എടുത്താണ് ഇവിടെ ബ്ലീച്ചിംഗ് നടത്തുന്നത് ആ നമ്മുടെ അശോകിൻ്റെ ഷിബു ഒട്ടകം തന്നെ അതെ മുത്തശ്ശൻ്റൊപ്പം വന്നാൽ ഒരു ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ഓഫറുണ്ടാവും അപ്പോൾ നിങ്ങളിലെതെങ്കിലും ഒരാൾ കട്ട് ചെയ്താൽ മറ്റേയാൾക്കും അത് അതെ കട്ടോ അതോ അതിൽ കുറഞ്ഞ വിലയുടെ ഒരു കട്ടോ ഫ്രീയായിട്ട് കിട്ടും

അങ്ങനെയാണെങ്കിൽ നമ്മളൊരു സ്പെഷ്യൽ ഓഫറുണ്ട് നിങ്ങളുടെ തലയിൽ നിന്ന് വെട്ടുന്ന മുടിയെടുത്തൊരു വിഗുണ്ടാക്കി മുത്തശ്ശന് വെച്ചോടുക്കാം അതെ അത് നമ്മുടെ പരിസ്ഥിതിക്ക് വേണ്ടി അതെ ഒരു വിഗുണ്ടാക്കുകാന്ന് പറഞ്ഞാൽ നമ്മുടെ പരിസ്ഥിതിക്ക് മോശമായ പല പ്രക്രിയകളും അതിൽ പെടുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒഴിവാക്കാനായിട്ടാണ് ഞങ്ങൾ ഇവടെ നിന്ന് മറ്റ് മൃഗങ്ങളുടെ മുടിയിൽ നിന്നുമൊന്നും എടുക്കാതെ ഇവിടെ നിന്ന് വെട്ടുന്ന അവരെ തന്നെ എടുത്ത് വെക്കുന്നത് അതുപോലെ തന്നെ ഞങ്ങളിവിടെ സ്പെഷ്യലായി ഇപ്പോൾ ചില ആൾക്കാരൊക്കെ അവരുടെ മുടിയോടൊരു സെൻറ്റിമെൻറ്റൽ വാല്യൂ ഒക്കെ കാണും അപ്പോൾ ഒരുപാട് മുടി നീട്ടി വളർത്തിയ ആൾക്കാരൊക്കെ വർഷങ്ങളോട് കൂടി വർഷങ്ങൾ മുടി നീട്ടി വളർത്തി ഇങ്ങനെ വെട്ടുന്നാൾക്കാരൊക്കെ ആണെങ്കിൽ ഞങ്ങളവരുടെ മുടി സ്പെഷ്യലായി പാക്ക് ചെയ്ത് അത് കൊണ്ടൊരു ബൊമ്മയുണ്ടാക്കി കൊടുക്കും ഇഷ്ടികക്കല്ലിന്റെ ചുവപ്പ് നിറം അത് ഉണ്ടാക്കാവുന്നതാണ് ഇഷ്ടികയുടെ ചു ചുവപ്പ് നിറമില്ല പക്ഷേ വേറെ കുറെ നിറങ്ങളുണ്ട് അപ്പോൾ എൻ്റിവിടെ വർക്ക് ചെയ്യണൊരാൾ കളർ തിയറി പഠിച്ചതാണ് അപ്പോൾ ആൾക്കതിൽ നിന്ന് എളുപ്പത്തിൽ ഇഷ്ടികയുടെ കളറുണ്ടാക്കാവുന്നതേയുള്ളൂ വിലാന്ന് പറയുമ്പോൾ യൂഷ്വലി ഇവിടെ റേറ്റുന്ന് പറയുമ്പോൾ കട്ടിംഗും ഷേവിംഗും ഇരുന്നൂറ്റിയൻപത് കട്ടിംഗും ഷേവിംഗും ഒന്നിച്ച് ചെയ്യുമ്പോൾ ഇരുന്നൂറ്റൻപതാണെങ്കിലും വേറെ വേറെയായി ചെയ്യാണെങ്കിൽ കാശ് നല്ല വ്യത്യാസമുണ്ട് അതായത് ഒരാൾ കട്ടിംഗും ഒരാൾ ഷേവിംഗും ആണെങ്കിൽ അതിന് നൂറ് രൂപ ഓഫുണ്ട്

മുടി വെക്കാണെങ്കിൽ ഇപ്പോൾ നമ്മൾ കൂടെ വന്നയാളുടെ മുടിയാണെടുത്ത് ഇപ്പറത്തുള്ളാൾക്ക് വെക്കാമെങ്കിൽ അതിൽ ആക്ച്വലി കാശ് കുറവാണ് പക്ഷേ നമ്മൾ വേറെ പുറത്തുന്ന് പുറത്തുന്നുള്ളൊരു വിഗാണ് വെക്കുന്നതെങ്കിൽ അതിന് നല്ല വ്യത്യാസം വരും കട രാത്രി രണ്ട് മണി തൊട്ട് വെളുപ്പിനാറ് മണി വെരെ ആയിരിക്കും തുറന്നിരിക്കുക ആ സ്ഥലമൊക്കുണ്ടാവും നിങ്ങൾക്ക് വേണെങ്കിൽ നൂറ് രൂപ അടച്ച് ഇപ്പത്തന്നെ ബുക്ക് ചെയ്ത് വെക്കാവുന്നതാണ് സീറ്റ് റിസർവ് ചെയ്ത് വെക്കാം ഇവിടെ സീറ്റും അവൈലബിളാണ് അത് തന്നെ നിങ്ങൾ അടക്കുന്ന പൈസ അനുസരിച്ച് സീറ്റ് മാറി മറിയും അതായത് സാധാരണ പ്ലാസ്റ്റിക് കസേരയുണ്ട് റിക്ലൈനറുണ്ട് അങ്ങനെ പലതരം സീറ്റുണ്ട് പിന്നെ ബാൽക്കണിയുണ്ട് അങ്ങനെ എല്ലാ തരം സീറ്റുകളുണ്ട്

ഓ അതെല്ലാം ഇവിടെ ലഭ്യമാണ്

പിന്നെ നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേയോട് അനുബന്ധിച്ച് ട്രൈ കളറ് മുടിക്ക് ട്രൈ കളറ് ചെയ്യാണമെങ്കിൽ അതിൽ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫുണ്ട് ഓക്കെ അതോടൊപ്പം ഇവിടെ ഗാം ഗാംബി കട്ടെന്നത് സ്പെഷ്യൽ കട്ടും ഇവിടെ റെഡിയാണ് ഓക്കെ ഓക്കെ ആ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാനുള്ള നൂറ് രൂപ ഇപ്പത്തന്നെ അയച്ച് തന്നെങ്കിൽ ഉപകാരമായിരിക്കും ഓക്കെ താങ്ക് യൂ